ആ ഇപ്പം ചെറിയ മാറ്റം ഒക്കെ ഉണ്ട് ആ പനി കുറഞ്ഞു ആ തലവേദന ഇപ്പം വലിയ കാര്യമായിട്ട് ഒന്നും ഇല്ല കുറവുണ്ട് കുറവുണ്ട് രാവിലെ കഞ്ഞിയാണ് കഴിച്ചത് ഇല്ല ടെസ്റ്റ് ചെയ്തില്ല ആരും വന്നില്ലായിരുന്നു ഒന്നും പറഞ്ഞും ഇല്ല ആ ഓക്കെ ഒന്നുകൂടെ ചെയ്യണം അല്ലേ

ആ ഹാ ഹാ

ഇല്ല ഇപ്പം ചെറിതായിട്ട് മൂക്കടപ്പ് ഉണ്ട് വേറെ പ്രശ്നം ഒന്നും ഇല്ല ആ ഹാ ഹാ ആ ഇല്ല നമ്മൾ അങ്ങനെ അധികം ആൾക്കാരെ ഒന്നും നിർത്തുന്നില്ല ആ ആയിക്കോട്ടെ ആ ഇപ്പം നിപ്പ അറിഞ്ഞു

ആ ആ

ആ ഓക്കെ ഇല്ല പുറത്തുനിന്ന് അങ്ങന നമ്മൾ അധികം മേടിച്ച് കഴിക്കുന്നില്ല

ആ ആ ഇല്ല ഇപ്പം അങ്ങനെ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒന്നും ഇല്ല ആ ഓക്കെ മാഡം ആ ഓക്കെ അപ്പം ഷുഗറിൻ്റെ റിസൾട്ട് ആരുടെ അടുത്താണ് കൊടുക്കേണ്ടത് ആ ഓക്കെ അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഇപ്പം ആരെയാണ് കാണിക്കേണ്ടത് ആ ഓക്കെ ആ ആ

ആ ഓക്കെ ആ

ആയിക്കോട്ടെ